ഹലോ ഹലോ മിസ്സേ ഗുഡ് ഈവനിങ് വീട്ടിൽ എത്തിയോ അത് ഞാൻ ആണെങ്കിലേ അരുണിനെപ്പറ്റി പറയാനാണ് വിളിച്ചത് കാരണം കഴിഞ്ഞ ഒരാഴ്ച്ചയായിട്ട് അവൻ ക്ലാസ്സിലിരിക്കുന്നത് അത്ര ശ്രദ്ധയൊന്നുമില്ല ഇപ്പം ഇന്ന് തന്നെ എൻ്റെ രണ്ട് ക്ലാസ് പിരീഡിൽ ഫുൾ അവേഴ്സും കിടന്നുറങ്ങി അപ്പം ഞാൻ ഇത് ഒരു ആഴ്ച്ചയായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതെങ്ങനെ പറയും എന്നാലോജിച്ച് കൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് റിൻസി ടീച്ചറും അത് എന്നോട് പറഞ്ഞത് എന്നാൽ പിന്നെ മാടം ക്ലാസ് ടീച്ചർ ആയത്കൊണ്ട് ഞാൻ വിളിച്ചത് അതെ മാടം കാരണം നല്ല ബ്രൈറ്റ് സ്റ്റുഡൻ്റാണ് നല്ല എപ്പോഴും പഠിച്ച് കൊണ്ടിരിക്കുന്നതാണ് ഒരു കുട്ടിയാണ് ഇതെ ഇതിപ്പം എനിക്ക് തോന്നുന്നു ഒരു ആഴ്ച്ച ആയിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു മാറ്റം കാണുന്നത് അപ്പം അതെന്താണ് എന്ന് അന്വേഷിക്കേണ്ടത് അതെ അതെ അതെ മാം ആ ഇപ്പം എനിക്ക് തോന്നുന്നു അവൻ്റെ അനിയത്തി പറഞ്ഞത് വച്ചാൽ അച്ഛനും അമ്മയും രണ്ടുപേരും ഇപ്പോൾ വീട്ടിൽ ഇല്ല അമ്മൂമ്മ മാത്രമേ ഉള്ളു അപ്പോൾ ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയത്തില്ല പിന്നെ അല്ലെങ്കിൽ അപ്പം അവനെ വിളിച്ച് തന്നെ ഒന്ന് സംസാരിക്കാം അങ്ങനെ മാർക്ക് കുറവില്ല പക്ഷെ ടോപ്പർ അല്ല ഇപ്പം ബീയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഫെയിലായില്ല എന്നെ ഉള്ളു അവനെ വിളിച്ച് തന്നെ അതെ അതിൽ ഇപ്പം എന്തെന്ന് അതേ ടീച്ചറെ അതല്ലെങ്കിൽ വീട്ടുകാരെ വിളിപ്പിക്കാം അതെ അതേ അതെ അല്ലെങ്കിൽ അമ്മുമ്മയെത്തന്നെ വിളിപ്പിക്കേണ്ടി വരും അതെ അതെ ഒന്ന് അവനെ ഒന്ന് സംസാരിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു പിന്നെ ഞാൻ ടീച്ചറിൻ്റെ കൂടെ ഒന്ന് സംസാരിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും നാളെ ഒന്ന് നോക്കട്ടെ അതെ അതെ അതെ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഭാവിയാണ് ശരി ടീച്ചർ എന്നാൽ ആ ഓക്കെ ആ ഓക്കെ ഓക്കെ